ഹലോ വയനാട് വയനാട്ടിലത്തെ ടൂറിസ്റ്റ് ഗൈഡ് അല്ലേ ആ ഞങ്ങൾക്ക് ഞാൻ മദ്രാസ് എന്നാണ് വിളിക്കുന്നത് ആ അപ്പോൾ വയനാട്ടിൽ എന്തൊക്കെയാണ് കാണാൻ ഉള്ളത് പ്ലേസ്

ആ എവിടേക്കൊക്കെ നല്ലൊരു സ്ഥലത്ത് ആ ബോട്ടിംഗ് ഒക്കെ ഇഷ്ടമാണ് ആ അവിടെ ഒക്കെ എങ്ങനെയാണ് പോകുന്നത് വണ്ടി ഉണ്ടാകുമോ

ഈ കുട്ടികളെ ഒക്കെ കൊണ്ടുപോകുവാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടോ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുവാൻ പറ്റുന്ന സ്ഥലങ്ങൾ

ആ എന്തൊക്കെ ഫുഡ് ഉണ്ടാവും

ഇവിടെ സ്റ്റേ ഒക്കെ എങ്ങനെയാണ് അപ്പം

ഇപ്പോൾ റിസോർട്ടൊക്കെ നോക്കായിരുന്നു

ആ ആ ബാണാസുര സാഗർ പോവാം ആ ആയിക്കോട്ടെ അങ്ങനെ ആക്കാം

ആ ആയിക്കോട്ടെ ആ ആ ആ

ആ ആയിക്കോട്ടെ വിളിക്കാം